ആ ആ ഞാനെ ആ ഞാനേ ഞങ്ങള് ഉദയഗിരി താമസിക്കുന്നതാണെ ഇപ്പോള് ഞങ്ങള്ക്കൊരു കുടുംബശ്രീയുണ്ട് കുടുംബശ്രീയില് പത്തംഗങ്ങളാണേ ഉള്ളതേ അപ്പോള് എന്റെ പേര് പ്രിയ എന്നാണ് അപ്പോള് ഞങ്ങളുടെ ഈ പത്തംഗങ്ങള്ക്ക് ഒരു ലോണാവശ്യമായിട്ട് വന്നെ ആ ലോണെന്നു പറഞ്ഞാല് ഞങ്ങള്ക്ക് ഒരു ഒരു പുതിയ സംരംഭം തുടങ്ങാന് വേണ്ടിയിട്ടാണ് ഒരു ആ പത്തു പേരാണ് ഒരു ലക്ഷം കിട്ടുന്ന തരത്തില് ഒരു പത്തു ലക്ഷം കിട്ടണം ആ ആ ആ അടയ്ക്കുന്നവരാണ് കുഴപ്പമില്ല എല്ലാവരും അടയ്ക്കുന്നതാണേ അപ്പോള് ഞങ്ങള് ഒരു ജൈ കൃഷി തുടങ്ങാന് വേണ്ടിയാണ് പ്ലാനേ ആ ജൈവകൃ ആ അന്നേരം പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട് അതിന്റെ വിപണനം നടത്തുക ലാഭമാണല്ലോ ഇപ്പോള് ജൈവകൃഷി ആ ആ ആ അപ്പോള് ഞങ്ങള്ക്ക് ഈ പച്ചക്കറി ഏകദേശം ഒരു പയറൊക്കെ നട്ടുകഴിഞ്ഞാല് അതിന്റെ വിളവെടുത്തുകഴിഞ്ഞാല് അടയ്ക്കാമല്ലോ അപ്പോള് ഒരു ഇന്ററസ്റ്റൊക്കെ കുറവുള്ളത് നമ്മള്ക്ക് ഈ കുടുംബശ്രീക്ക് ലോണ് കിട്ടുമ്പോള് അതിന്റെ പലിശ കുറവായിരിക്കുമല്ലോ അല്ലേ ആ അതെ ആ എട്ടര ശതമാനമാണല്ലേ ആ എന്നാല് ആ ഹാ ആ ആ എന്നെങ്കി ഞങ്ങള് അടച്ചോളാം പലിശയൊക്കെ അടച്ചോളാം ആ ഹാ ആ രേഖകള് എന്തെക്കെയാണു വേണ്ടത് ആ

പട്ടയം ഒരാളുടേതു കൊടുത്താല് മതിയോ അതേല്ലെ ആ ആ പട്ടയം ഉള്ളത് ആ ആ ആ അങ്ങോട്ടും ഇങ്ങോട്ടും നില്ക്കാമല്ലേ ഓ ഓക്കെ ഓക്കെ ഓക്കെ

ആ എത്ര വര്ഷത്തെ കാലാവധിയായിരിക്കും ഇതൊന്നടച്ചു തീര്ക്കാന് ആ മൂന്നു വര്ഷം കൊണ്ടടച്ചു തീര്ക്കണം

ആ ശരി ആ ആ ഈ പത്തംഗങ്ങളും ബാങ്കില് വരണ്ടേ

ആ ആധാര് കാര്ഡ് എല്ലാവരുടെയും വേണം അല്ലേ ആ ഹാ ആ ഹാ എനിക്ക് ഞാന് എല്ലാവരെയും ഒന്ന് അറിയിച്ചിട്ട് നാളെത്തന്നെ ബാങ്കിലേക്കു വന്നേക്കാവേ ആ ഏ ഓ ഓക്കെ ഓക്കെ ഇത്രയും ഇത്രയും കാര്യങ്ങള് പറഞ്ഞുതന്നതിന് വളരെ നന്ദിയുണ്ട് മാഡം ഓ ഓക്കെ താങ്ക്യൂ